നമ്മുടെ നാട്ടിൽ എന്നു പറയുമ്പം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകൾ ഉണ്ട് ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ളത് ഇവരൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവർടെ അടുത്തൊക്കെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഓരോരുത്തരുടെ അടുത്തും ഇപ്പം ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് കാണുന്നത് ആയിരിക്കില്ല വേറൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് കാണുക ഒരിടത്ത് കാണുന്ന സാധനമായിരിക്കില്ല വേറെ അങ്ങനെ പണ്ട് എല്ലായിടത്തും ഉള്ളത് സെയിം സാധനങ്ങളായിരുന്നു ഇപ്പോളെന്ന് പറയുമ്പം ഓരോരുത്തരുടെ ഇടത്തും ഓരോ ഓരോ ചെണ്ട ബാൻഡ് പിന്നെ പീപ്പി പോലെത്തെ സാധനങ്ങൾ ഉടുക്ക് അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഇവരുടെ കൈയിൽ കാണാം ഇതിപ്പം എലത്താളം അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഇപ്പം ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഉപകാരം എന്നു പറയുമ്പം ഓരോന്നിനും ഓരോ രീതിക്കുള്ള സൗണ്ടായത് കൊണ്ടും അതിൻ്റെ ഇപ്പം എന്താണ് പറയുക ഫ്ലോ അങ്ങ് മാറും ഫ്ലോ മീൻസ് ടൂണ് പല തരത്തിലായിരിക്കും ആ ടൂൺ ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ കണ്ടു നിൽക്കുന്നത് ഇപ്പം ഈ ഇപ്പം ഉള്ള സമയമെന്നു പറയുമ്പം അതിൻ്റെ ഫെസ്റ്റിവൽ സമയമാണ് ഇപ്പം എല്ലായിടത്തും തന്നെ അത്യാവശ്യം ഈ ഭജന എന്നു പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം അവരുടെ ഓരോ ടൂണുകൾ അവരുടെ ഓരോ സാധനങ്ങൾ ഇതിന് വേണ്ട ഉപകരണങ്ങൾ ഉപകരണങ്ങൾ എന്നൊക്കെ പറയുമ്പം പല തരത്തിലുണ്ട് ഇപ്പം നമുക്ക് അറിയുന്നതും കാണാത്തതായതും അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പം തന്നെ നമുക്ക് ഒരു കൂളിർമ തോന്നും ഓരോന്നിനും വ്യത്യസ്തമായ വ്യത്യസ്തമായ സൗണ്ടുകൾ അതിൻ്റെ രൂപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെന്നു പറയുമ്പം അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല എല്ലാവരുടെ അടുത്തും തന്നെയുള്ളത് ഇപ്പം ചെണ്ട ഡ്രംസ് അങ്ങനെ കുറേ തരത്തിൽ ഇങ്ങനെ നീണ്ടു നിവര്ന്നു ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ് ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്തും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പുതിയത് പുതിയത് ഇവർ ഓരോ സീസണിൽ ഇങ്ങനെ ഇറക്കി കൊണ്ടിരിക്കും അതേപോലെ തന്നെ ഓരോ സീസൺ വരുമ്പോഴും ഇവർക്ക് ഓരോ പുതിയ ടൂണുകൾ വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം കൂടുതൽ ഉള്ളത് ഭജന ട്രുപ്പുകൾ